സ്കൂളുകൾ സ്കൂളുകളിൽ നമ്മൾ പാഠ്യവിഷയങ്ങൾ അല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കലാപരമായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പിന്നെ കായികപരമായിട്ട് കുറേ ഇനങ്ങളുണ്ട് ഇപ്പോൾ നോ നോക്കാന്ന് പറയുബോൾ സം കായികം നോക്കുകയാന്ന് എന്ന് പറയുബോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഇപ്പോൾ അത്ലറ്റിക്സ് ആണെങ്കിൽ അങ്ങനെ പിന്നെ ഓരോ കളികൾ ഇപ്പോൾ ക്രിക്കറ്റാണെങ്കിൽ അങ്ങനെ ഫുട്ബോൾ ബാസ്കറ്റ്ബാൾ ചില സ്കൂളുകൾ ചിലതിന് മാത്രമെ പ്രാധാന്യം നൽകുന്നുള്ളൂ പക്ഷെ നമ്മൾ അധികം മിക്ക സ്കൂളുകളിലും ഏതാണോ ആ കുട്ടിയുടെ താല്പര്യം കുട്ടിക്ക് ഏതിനാണോ കഴിവ് ഉള്ളത് അതനുസരിച്ച് അവൻ്റെ ആ ആദ്യം നമ്മളൊരു ടെസ്റ്റ് പോലെ വെച്ചിട്ട് പിന്നെ നമ്മൾ അവർക്ക് താൽപര്യം ഉള്ള രീതിയിലേക്ക് ക്ലാസുകൾ എടുത്ത് കൊടുക്കാനും അവർക്ക് കോച്ചിങ്ങ് കൊടുക്കാനും ഒക്കെ ഉള്ള മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരിക്ക്ന്ന് ഇപ്പോൾ അത്പോലെ തന്നെ ഈ ഡാൻസ് പിന്നെ പാട്ട് കഥാപ്രസംഗം പിന്നെന്താണ് വരക്കാനുള്ള കഴിവ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് എല്ലാത്തിനും ഇപ്പോൾ ഈ പാ പണ്ടത്തെ വെച്ച് നോക്കുകയാണെന്ന് പറയുമ്പൊൾ ഓരോ സ്കൂളുകളിൽ ഓരോ കഴിവുകൾ വളർത്താനുള്ള ഓരോ ഇത് നമ്മുടെ സ്ക്കൂളുകളിൽ ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്